സാധാരണ കളറൊക്കെ ചേർത്ത് കസ്റ്റമർ വരുമ്പോൾ അവർക്കു ഇഷ്ടമുള്ള കളർ തിരഞ്ഞെടുക്കുകയാണ് പിന്നെ ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾ ഞാനവർക്ക് പറഞ്ഞുകൊടുക്കും ചിലവരത് ആ എക്സെപ്റ്റ് ചെയ്യും ചിലവ രത് കളയും പിന്നെ ഓരോ അതിനും അവരവരുടെ ഇഷ്ടരീതിയിലുള്ള രീതിയിലാണ് അവരെടുക്കുന്നത് പിന്നെ ഓരോ പറ്റണേയെന്നു പറഞ്ഞാൽ അത് ഓരോ തുണിക്കും അതിൻ്റേതായ യോജിക്കുന്ന കളറാണ് നമ്മൾ പാറ്റേണായിട്ട് എടുത്തുകൊടുക്കുന്നത് ഇപ്പം ഒരു തുണിയേൽ ഒരു വയലറ്റ് ഉണ്ട് നമ്മളാ തുണിക്ക് ആ പൂക്കളുണ്ടെങ്കിൽ ആ വയലറ്റിനു ചേർന്ന ഒരു തുണി ഒരു പാറ്റേൺ അതിൽ വെക്കുമ്പം നല്ല ഭംഗിയായിട്ടു വരും തൈച്ചിട്ട് കഴിയുമ്പം അതെന്തായാലും നൈറ്റിയായാലും ചുരിദാറായാലും എന്തായാലും പാറ്റേൺ വെക്കുന്നതാണ് ഏറ്റും ആ തുണിയുടെ ഏറ്റും വലിയ ഭംഗിയെന്നു പറയുന്നത് തുണി തയ്ച്ചിട്ട് കഴിയുമ്പോൾ ആ പാറ്റേൺ ആണ് അതിനു ഭംഗി കൊടുക്കുന്നത് നന്നായിട്ട് തയ്ച്ച് ഇടുമ്പം തന്നെ അതിൻ്റെ ആ ഇതാണ് നമുക്ക് എറ്റവും ഇഷ്ടപ്പെടുന്നത് ഞാനങ്ങനെയാണ് തയ്ക്കാറെന്നു ഞാൻ വരുന്ന കസ്റ്റമറോടു പറയും ഞാൻ തയ്ച്ച് ഇടുന്നതും എല്ലാവരുംതന്നെ എന്നോടു ചോദിക്കും ഇതെങ്ങനാ ഇതെവിടെയാണ് തയ്പ്പിച്ചത് അല്ലെ എവിടാ ഞാൻ തന്നെ തയ്ച്ച ഞാൻ തന്നെയാണ് തയ്ക്കുന്നതെന്നു പറയും ഞാനങ്ങനെയാണ് എൻ്റെ തയ്ക്കുന്നത് അപ്പോൾ വരുന്ന കസ്റ്റമറോടു ഞാൻ പറയും ഇങ്ങനെടുക്കാൻ അപ്പം അത് ഇതായി ഇതു തമ്മിൽ കോമ്പിനേഷനാണ് നന്നായിട്ട് തൈച്ചാൽ ഭംഗിയായിരിക്കും ഇടാനെന്നുപറയും ചിലവരതൊക്കെ കേട്ടുതന്നെ അതുതന്നെ എടുത്തു കൊണ്ടുപോയി അവർ അങ്ങനെ തന്നെ തയ്ച്ചിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എനിക്കതു കാണുമ്പോൾത്തന്നെ നമുക്കൊരു സംതൃപ്തി നമ്മൾ പറഞ്ഞത് അവർ കേട്ടല്ലോ അല്ലെ അതു കാണുമ്പോൾ മറ്റുള്ളവർ ചോദിക്കുമ്പോൾ ഇന്ന ആൾ പറഞ്ഞിട്ടാണെന്നു കേൾക്കുമ്പോൾ നമുക്കൊരു സംതൃപ്തിയുണ്ട്